ഇന്നത്തെ കാലത്ത് സെൻസിറ്റീവ് ആയിട്ടുള്ളതും സന്ദേഹം പുലർത്തുന്നതുമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മേലുള്ള അത്യാക്രമണം തന്നെയാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ ചെറിയ പിഞ്ച് കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായവരെ പോലെയും വീട്ടിൽ ആണെങ്കിൽ പീഡിപ്പിക്കുകയും വീട്ടിലുള്ളവരാണെങ്കിൽ കൂടിയും പ്രായം ആയവരെ നോക്കാനുള്ള ഒരു മനസ്ഥിതി കാട്ടുകയോ മറ്റുള്ള കാര്യങ്ങൾ പിന്നെ പുറത്ത് പോവുന്ന കുട്ടികളെ പിടിച്ച് പറിച്ചു കൊണ്ട് പോവുക മറ്റുള്ള ചാക്കിലിട്ടുകൊണ്ട് കുട്ടികളുടെ രൂപത്തിലും ഭാവത്തിലൊക്കെ മാറ്റം വരുത്തുക കുട്ടികളെ പീഡിപ്പിക്കുക ഇന്നത്തെ കാലത്ത് സന്ദേഹം പുലർത്തുന്ന വിഷയങ്ങൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിൽ പാടില്ലെന്ന് പറയുന്ന പല കാര്യങ്ങളും ഇന്ന് നടന്നു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്യുക നമ്മൾ എത്ര കരുതലെന്ന് കരുതി നമ്മൾ ഇരുന്നാലും അതിനൊന്നും യാതൊരു വിധ പ്രൊട്ടക്ഷനും നമുക്ക് വേറൊരു തരത്തിലോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് സെൻസിറ്റീവ് ആയിട്ട് വിഷയങ്ങൾ എന്ന് പറയാനാണെങ്കിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് ഇന്ത്യയിൽ ഒരു പ്രൊട്ടക്ഷൻ ഇപ്പോഴും കിട്ടുന്നില്ല